ഹലോ ഇത് ഷോപ്പല്ലേ സൂസനാണേ മിനിയുടെ ഷോപ്പാണോ

നല്ല വിശേഷം അവിടെ എനിക്കിച്ചിരെ നെല്ലിക്കയും ഏത്തക്കയും പിന്നെ ചക്കയും മേടിക്കാനാണ് ഉണ്ടോ എന്നറിയാൻ വിളിച്ചതാണേ ആണോ ആണോ ആ ആണോ ഉണ്ടല്ലെ എനിക്ക് കുറച്ച് ആ മ് എനിക്ക് കുറച്ച് വിരുന്നുകാര് വന്നിട്ടുണ്ടേ അതുകൊണ്ട് നല്ല ഫ്രെഷ് ചക്ക പഴുത്തതും വേണം വേവിക്കാനുള്ളതും വേണം ഇത്തിരി വറക്കാനുള്ളതും കൂടെ വേണം ആ പിന്നെ ഇച്ചിരെ നാടൻ പിന്നെ ഇച്ചിരെ നാടൻ നെല്ലിക്ക എന്തോ ആ മുഴുവനോടെ വേണം ഇച്ചിരെ ആൾക്കാർ കൂടുതൽ വരുന്നുണ്ടേ അപ്പം എല്ലാവർക്കും ഇച്ചിരി അങ്ങ് കൊടുക്കാനും ഇച്ചിരി വറുത്ത് കൊടുത്ത് വിടാനും ഇച്ചിരി വേവിക്കാനും എല്ലാത്തിനും കൂടെയാണേ ആ ഒര് പഴുത്ത ചക്കയും ഒരു പച്ച ചക്കയും ആ ആ പിന്നെ ഇച്ചിരി നല്ല ഫ്രെഷ് ഏത്തക്കയും വേണം പഴുത്തത് അതൊരു പത്ത് കിലോ തന്നേരേ ആ ഒരു പത്ത് കിലോ ആ ആ അത് ഇച്ചിരി ബോളി ഉണ്ടാക്കാനും ഇച്ചിരി പുഴുങ്ങാനും ഒക്കെ ആയിട്ടുള്ളതാണേ അല്ല അപ്പം ഈ മരുന്നൊന്നും ഈ വിഷവൊന്നും അടിക്കാത്ത നല്ല ഫ്രഷ് ഏത്തക്ക വേണം കേട്ടോ ആ ഇവിടുന്ന് ഇവിടെ നിന്നുള്ളത് പിന്നെ മ് ഉണ്ടല്ലേ ആ പിന്നെ ആ പിന്നേ എനിക്ക് ഇച്ചിരെ നാടൻ നെല്ലിക്ക അരിഷ്ടവിടാനുള്ളതും പിന്നെ ഇച്ചിരെ അച്ചാറിടാനുള്ളതും മ് ഇച്ചിരെ കറി വെക്കാനുമുള്ള നെല്ലിക്ക വേണം ആ നാടൻ നെല്ലിക്ക വേണേ നമ്മുടെ ഇവിടുത്തെ നെല്ലിക്ക ആ ഉണ്ടോ കടയിൽ ഉണ്ടോ ഉണ്ട് അത് ഒരു ഒരു പത്തിരുപത്തഞ്ച് കിലോ വേണമായിരുന്നു ഇച്ചിരേ അരിഷ്ടവിടാൻ ഇത്തിരി കൂടുതൽ വേണം ആ വല്ല ഫംഗ്ഷനൊക്കെ വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് അരിഷ്ടവിടണം പിന്നെ ഇച്ചിരെ അച്ചാറും ഇടണം ഇച്ചിരെ പച്ചക്ക് തിന്നാനൊക്കെയായിട്ട് എടുക്കാൻ ആ ഒന്ന് വീട്ടിലെത്തിച്ച് തരികയായിരുന്നെങ്കിൽ വലിയ ഉപകാരം ആയിരുന്നു കടയിൽ വണ്ടിയൊക്കെ സൗകര്യമുണ്ടോ ഇഷ്ടി കഷ്ട കൊണ്ടുവന്നു തരാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ ബൈ ആ ഉണ്ടല്ലെ ആ എനിക്ക്

ആ ആ ആ ആണോ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പത്തേക്കും തരാവോ ആ ഓ താങ്ക്യു താങ്ക്യു